ഇപ്പോൾ എന്നെക്കുറിച്ച് പറയുകാണെങ്കിൽ എൻ്റെ പേര് അഖിൽ ഞാൻ പുൽപ്പള്ളിയാണ് താമസം പിന്നെ പുൽപ്പള്ളി അമരക്കുരി എന്ന പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട് പിന്നെ എൻ്റെ വീട്ടിൽ അച്ഛനുണ്ട് അമ്മയുണ്ട് എനിക്കൊരനിയത്തി ഉണ്ട് ഒരു ചേച്ചി ഉണ്ട് ചേച്ചീനെ കല്യാണം കഴിച്ചു ചേച്ചീൻ്റെ ചേച്ചി ഇപ്പോൾ ഇവിടെ ഇല്ല ചേച്ചീന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ജർമനിയിലാണ് ജർമനിയിൽ ഭർത്താവും അവർ ഏകദേശം അവിടെ സെറ്റിൽഡ് ആയിട്ടുള്ളൊരു ആൾക്കാരാണ് ചേച്ചിക്കൊരു ചെറിയൊരു മോനുണ്ട് ഇവർ ഈ ഓണത്തിന് വരുന്നുണ്ട് പിന്നെ എന്നെക്കുറിച്ച് പറയുകാണെങ്കിൽ എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട് ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താ പറയാ ഞാനിപ്പം പഠിക്കുന്നത് ഡിഗ്രി തേർഡ് ഇയർ ആണ് അപ്പോൾ ഡിഗ്രി തേർഡ് ഇയർ പഠിക്കുന്നതുകൊണ്ട് ഞാനിപ്പം ബീ എ ഇംഗ്ലീഷ് ആണ് പഠിക്കുന്നത് ഡിഗ്രി തേർഡ് ഇയറിൽ ബാക്കി എന്താ പറയാ പ്ലസ്ടൂ ഒക്കെ നല്ല രീതിയിലാണ് ഞാൻ ജയിച്ചത് എനിക്കത്യാവശ്യം നല്ല രീതിയിൽ ഉള്ള മാർക്ക് എനിക്ക് വലിയ എന്താ പറയാ വലിയൊരു മാർക്കില്ലെങ്കിലും അത്യാവശ്യം തട്ടിം മുട്ടീം പോവാൻ പാകത്തിനുള്ളൊരു മാർക്ക് കാര്യങ്ങളൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കൊരു കാറുണ്ട് പിന്നെ ഒരു ബൈക്കുണ്ട് ഇതൊക്കെ എനിക്കുള്ളത് തന്നെയാണ് പിന്നെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വേറെ വലുതായിട്ടൊന്നുമില്ല ഇതൊക്കെയാണ് ഞാൻ